ഹലോ ഡോക്ടർ ഞാൻ സെമീനയാണ് ഞാൻ കഴിഞ്ഞ മാസം അവിടെ ചെക്കപ്പിന് വന്നിരുന്നു അപ്പോൾ വരാനായിട്ടില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര വയറ് വേദനേം വയറെളക്കൊക്കെണ്ട് ഇന്നലെ ഗസ്റ് വന്നപ്പോൾ പുറത്തുന്ന് ഫുഡ്ഡ് ഓഡെർ ചെയ്തിരുന്നു കഴിച്ചത് ബിരിയാണി ബിരി ചിക്കൻ ബിരിയാണി ആ പിന്നെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് കോൾഡ് വരുന്നുണ്ട് നല്ല വെറയലൊക്ക വരുന്നുണ്ട്

ഓക്കേ നാളെ എപ്പഴാ കിട്ടുക അപ്പോയിൻമെൻറ്റ് ആ അതെ അതെ സാധാരണ വന്ന സമയത്ത് വന്നാൽ പോരെ ഛർദ്ദിയൊന്നുല്ലാ പക്ഷേ ഭയങ്കര ടയേടായിട്ട്ണ്ട് ഷീണമാ നല്ല ഷീണ്ണ്ട് ബ്ലഡ്ഡ് ടെസ്റ് ചെയ്യാണെങ്കിൽ എത്രയാക്കും പൈസ എത്രയാ വരാ

ആ ഓക്കേ ഇല്ലാ അവിടടുത്തൊന്നുല്ലാ

ആ ഓക്കേ ശരിന്നാൽ താങ്ക് യൂ